എൻ്റെ അഭിപ്രായത്തിൽ മൊബൈൽ ഫീഡ്കളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സത്യസന്ധമായ വാർത്തകള് ഇപ്പഴത്തെ കാലത്ത് നമ്മള് കേൾക്കുന്നത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാല് മൊബൈലാണെങ്കില് നമ്മള് നമ്മുടെ അടുത്ത് എന്തെങ്കിലും വാർത്തകള് സംഭവിച്ചാല് അപ്പോൾ തന്നെ നമ്മള് അത് അറിയുകയും നമുക്ക് കൂടുതലും ഈ പത്രങ്ങളിലും റേഡിയോകളിലും വരുന്നതിനേക്കാളും കൂടുതല് കാര്യങ്ങള് നമുക്കറിയാനും കൂടുതൽ സത്യസന്ധമായ കാര്യങ്ങളിൽ നമുക്കറിയാനും സാധിക്കുമെന്നാണ് എൻ്റെ ഒര് അഭിപ്രായം റേഡിയോകളും പത്രങ്ങളും നമ്മള് ഇപ്പം പത്രങ്ങൾലൊക്കെ ആണെങ്കിലും ഇന്ന് വരുന്ന വാർത്തകളൊക്കെ നമ്മള് നാളെ ഇന്ന് രാത്രിയിലത്തെ വാർത്തകളൊക്കെ നമ്മള് നാളെയാണ് അറിയുന്നത് തന്നെയും അല്ല എല്ലാം സത്യസന്ധമായ വാർത്തകള് ആണെങ്കിൽ പോലും നമുക്ക് അത് കൃത്യമായ രീതിയില് വിവരങ്ങള് കിട്ടണമെന്നില്ല അതുപോലെ തന്നെ റേഡിയോ ആണെങ്കിലും റേഡിയോകളാണെങ്കിലും വാർത്തകള് പറയുമ്പോള് നമ്മള് ശരിക്കും കൂടുതല് ഈ റേഡിയോകള് നമുക്ക് നമ്മുടെ അടുത്തുള്ള വാർത്തകളൊക്കെ എങ്ങനെ കേൾക്കാൻ സാധിക്കുമെന്ന് എനിക്കത്രേ

അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മളെ ഇപ്പം എന്തെങ്കിലും ഒരു അത്യാഹിതമോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങള് നടന്നാൽ അന്നേരം തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു വാർത്ത നമ്മള് പെട്ടന്ന് തന്നെ അറിയുകയും നമുക്ക് അതിനാന്ന് നമുക്ക് ആ കാര്യങ്ങൾ പെട്ടെന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങള് ചെയ്യാൻ പറ്റുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ ഈ റേഡിയോ ആണെന്ന് പറഞ്ഞാലും പാത്രങ്ങളാണെങ്കിലും നമുക്ക് ഇത് വാർത്ത അറിയണമെങ്കിൽ കുറെ താമസമുണ്ട് അതുപോലെ തന്നെ എല്ലാം സത്യസന്ധമായിരിക്കണം എല്ലാവരും ഇപ്പം ഇത് സത്യസന്ധമായിരിക്കണം എന്നില്ലെന്ന് പറഞ്ഞാല് മൊബൈലാണെങ്കില് നമ്മള് ഇപ്പം ഇത് നമ്മൾ തൊട്ടടുത്തോ അല്ലെങ്കിൽ അടുത്ത ഇത് കണ്ടിട്ടാണല്ലോ അതിൻ്റെ വാർത്തകള് പറയുകയും അതുപോലെ തന്നെ ഇത് നമ്മളിത് കണ്ട് നമ്മള് ഫോട്ടോ എടുക്കുകയും ഇത് വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്ത് നമ്മള് ശരിക്കും ഇത് നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന ഒരു സംഭവം നമുക്ക് അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടാണ് നമ്മളിത് ഇതിനകത്ത് മൊബൈലിനകത്ത് ഈ വാർത്തകളൊക്കെ പറയുന്നത് റേഡിയോ ആണെങ്കിലും പത്രങ്ങളാണെങ്കിലും നമ്മള് റേഡിയോലിത് ഇപ്പം നമുക്ക് ഇപ്പം ഇന്നൊരു വാർത്ത ഉണ്ടായാലും നാളെ അല്ലെങ്കിലിത് ശരിക്കും എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നോ എവിടെയാണെന്നോ ഇതൊക്കെ അറിയണമെങ്കില് ഭയങ്കര താമസം ഉണ്ട് ഇപ്പം നമുക്ക് റേഡിയോയിലാണേ അവരെപ്പളാ പറയുന്നെന്നോ എപ്പം നമ്മളെങ്ങനെ ഇത് അറിയണമെങ്കിൽ തന്നെ താമസം കുറെ താമസങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ എല്ലാം കൃത്യമായ ഒരു സംഭവങ്ങള് ഇവര് ശരിക്കും അറിഞ്ഞിട്ട് കണ്ട് പറയുന്ന ആയിരിക്കണം എന്നില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മൊബൈലായിരിക്കുന്നു ഇപ്പം ഏറ്റവും കൂടുതല് നമ്മളെ ശരിക്കും നമ്മളെ കൂടുതലും നമുക്ക് നല്ലതായിട്ട് വാർത്ത അറിയാൻ സത്യസന്ധമായ വാർത്ത അറിയാനും എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരഭിപ്രായത്തിൽ മൊബൈൽ ആണ് തന്നെയാണെന്നാണ് എൻ്റെ ഒര് അഭിപ്രായം അതുപോലെ തന്നെ പത്രങ്ങളാണെങ്കില് ഇപ്പോൾ ഒര് ഇന്ന് നടക്കുന്ന ഒരു കാര്യങ്ങള് നമുക്ക് നാളെ നാളെയോ അല്ലെങ്കില് കുറെ താമസിച്ചല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ അവര് പത്രത്തിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും വന്നിത് കണ്ടും അതുപോലെ ഇതിനെക്കുറിച്ച് പഠിച്ചും ഒക്കെ കാര്യങ്ങള് പറയുമ്പോൾ തന്നെ അതിന് കുറെ താമസങ്ങള് വരും അതുപോലെ തന്നെ കൃത്യമായ എല്ലാ സത്യസന്ധമായിരിക്കണം എന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മൊബൈലാണെങ്കിലും എല്ലാം സത്യസന്ധമായ വാർത്തയായിരിക്കണം എന്നില്ല പക്ഷേ കൂടുതലും നമുക്ക് ഇത് മൊബൈലില് ആണെങ്കില് അടുത്ത് നമുക്കിത് കാണാനും അതുപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഒരു എന്താണെങ്കിലും ഒരു കുറെ നല്ല രീതിയിലൊരു സത്യസന്ധമായ വാർത്തകളായിരിക്കും വരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ മൊബൈലാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തില് മൊബൈല് തന്നെയാണ് അതിനകത്തൊരു സത്യസന്ധമായ വാർത്ത നമുക്ക് പെട്ടെന്ന് നമ്മളെ അറിയിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം റേഡിയോ ആണെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ കുറെ താമസമുണ്ട് വാർത്തകളൊക്കെ കിട്ടണമെങ്കില് കുറെ താമസം വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം പത്രങ്ങളാണെങ്കിലും ഇതൊക്കെ കണ്ടുപിടിച്ച് വരാനും ഇതിനെക്കുറിച്ച് എല്ലാം പഠിച്ച് എല്ലാം വാർത്തയായി വരുമ്പത്തന്നെ താമസം ഉണ്ട് നമ്മള് കണ്ടെത്താന് കണ്ടു പിടിക്കാനും നമുക്ക് കിട്ടാനും താമസം വരുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനകത്ത് വരുന്നത് മൊബൈലാണെങ്കിൽ നമുക്കെപ്പോഴും നമ്മുടെ അടുത്തുണ്ട് നമുക്കെപ്പൊഴും കണ്ടുപിടി പിടിക്കാൻ സാധിക്കും എപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ഒരു കാര്യങ്ങളാണെങ്കിലും നമുക്ക് പെട്ടന്നതിൻ്റെ ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ ഒക്കെ ആണെങ്കിലും നമ്മള് വാർത്തകള് പെട്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാനും അതുപോലെ സത്യസന്ധമായ വാർത്തകള് വരാൻ സാധ്യതയുള്ളത് മൊബൈലിൽ നിന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം എനിക്ക് തോന്നുന്നതിങ്ങനെ പത്രങ്ങളാണെങ്കിലും റേഡിയോ ആണെങ്കിലും കുറെ താമസം വരുകയും നമുക്ക് കൃത്യമായ ഒരു വാർത്ത കിട്ടാൻ നമുക്ക് കൃത്യമായിട്ട് വരും എങ്കിലും നമുക്കത് അതിനെക്കഴിഞ്ഞൊക്കെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തില് മൊബൈലിലാണ് ഇത് സത്യസന്ധമായ ഒരു വാർത്ത നമുക്കിപ്പം നിലവിൽ പെട്ടെന്ന് നമ്മെ അറിയിക്കാനും മറ്റുള്ളവരെ അറിയിക്കാനും നമ്മളറിയാനും സാധ്യത കൂടുതലെന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം അതുകൊണ്ട് മൊബൈൽലായിരിക്കും അഭിപ്രായം എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്